മലയാള ഭാഷ സംസാരിക്കുന്ന നേരിടുന്ന ചില വെല്ലുവിളികളെ കുറിച്ചു നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ട ഒന്നാണ് മലയാളഭാഷ എവിടെയൊക്കെ ഒതുങ്ങി എന്നുള്ളത് ലോകത്ത് അത് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒറ്റ ഒരു സംസ്ഥാനത്ത് മാത്രമുള്ള സംസാരിക്കുന്ന ഭാഷ മാത്രമായിട്ട് മലയാളം മാറിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾ പോയി നോക്കിയാലും അധിക ഒന്നെങ്കിൽ അത് ഒരു ഭാഷ എന്നുള്ളത് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടിയായിട്ട് സംസാരിക്കുക പക്ഷെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രം ഒതുങ്ങി എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയാണ് അതുപോലെ മലയാളം എന്നുള്ളത് ഒരു ഗ്ലോബൽ നിലയ്ക്ക് ഉയരാത്തത് കാരണം തന്നെ നമുക്ക് പ്രസൻറ്റേഷന് അതുപോലെ തന്നെ കോൺഫ്രസ്സ് അങ്ങനത്തെ പല പ്രസ് മീറ്റ് കാര്യങ്ങളിലൊക്കെ മലയാളം പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഒരു ഗ്ലോബൽ ലെവല് പറയുമ്പോൾ കുറേ ആളുകൾക്ക് പല ഭാഷകളും ഉണ്ടാവുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കും ഇപ്പം ഇന്ത്യയിൽ തന്നെ മലയാളത്തിൽ ഒരു വലയ പ്രസ മിറ്റ ഒരു പ്രധാനമന്ത്രി മലയാളത്തിൽ പ്രസ് മീറ്റ് വയ്ക്കുകയാണെങ്കിൽ അത് മനസ്സിലാവില്ല മറിച്ചു ഹിന്ദിയിലോ ഉറുദുവിലോ പറയുകയാണെങ്കിൽ അത് മലയാളികൾക്ക് അടക്കം അതിനെ ക്യാപ്ച്ചറ് അതിനെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് പക്ഷേ മലയാള ഭാഷ അതാണ് അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഇന്ത്യയിൽ തന്നെ മലയാള ഭാഷ നേരിടുന്നുണ്ട് പ്രത്യേകിച്ചു മലയാള ഭാഷ സംസാരിക്കുന്നത് നേരിടുന്ന വെല്ലുവിളി കേരളത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഒന്ന് ചികഞ്ഞു അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കേരളത്തിൽ തന്നെ പല ഭാഗത്തും പല സ്ലാങ്ങുകളിലായിട്ടും പല രീതിയിലായിട്ടും മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് കാസർഗോഡ് ഭാഷയിലെ കാസർഗോഡ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവരുടെ പ്രത്യേക രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് അത് ചില ഈ നമ്മുടെ ഈ കേരളത്തിൻ്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മധ്യഭാഗത്ത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ കാസർകോഡ് മലയാള ഭാഷയും കോഴിക്കോട് മലപ്പുറത്തെ പല ഭാഷയും വളരെ തമ്മിൽ അജ ഗജാന്തര വ്യത്യാസമുണ്ട് അപ്പം അത് അവർക്ക് തന്നെ തമ്മിൽ അത് കേരളത്തിലെ രണ്ട് ജില്ലകൾക്ക് തമ്മിലുള്ളവർക്ക് തന്നെ മലയാള ഭാഷ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് കയറുന്ന ഒരു വെല്ലുവിളി തന്നെ മലയാള ഭാഷയിലുണ്ട് അപ്പം നമുക്ക് കാണാൻ സാധിക്കും കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു ജില്ലയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ കുറ്റ്യാടി ഭാഗം ഈ കുറ്റിയാടി ഭാഗം പേരാമ്പ്ര അതുപോലെ തന്നെ നമ്മൾ കൊളത്തൂർ ഭാഗങ്ങളിലൊക്കെ വളരെ വൾഗർ ആയിട്ട് തന്നെ നമ്മൾ ഈ മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട് ഒരു നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരു പ്യുവർ മലയാള ഭാഷ ഒരു ശുദ്ധ മലയാള ഭാഷ എന്നു പറയാൻ പറ്റുന്നത് കോഴിക്കോട് ഈ കുറ്റിയാടി ആ മേഖല മാറ്റി നിത്തിയാാൽ കോഴിക്കോട് മലപ്പുറത്തിൻ്റെ ഒരു കൊണ്ടോട്ടി ആ ഏരിയയിലുള്ള കൊണ്ടോട്ടി അത്ര ഇല്ലെങ്കിലും ആ ഏരിയയിലുള്ള ഒരു ഭാഷകൾക്ക് മലയാള ഭാഷ ശുദ്ധ മലയാള ഭാഷ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള മലപ്പുറം അങ്ങനത്തെ മലപ്പുറം മഞ്ചേരി പുല്ലാര ഭാഗത്തൊക്കെ പോകുകയാണെങ്കിൽ ഇജ്ജി കജ്ജി കുജ്ജി എന്നുള്ള വൾഗറായ ഓരോ ഭാഷയിൽ ഒക്കെ മലയാളം പോകുന്നുണ്ട് ഇത്ര വെല്ലുവിളികൾ മലയാള ഭാഷ സംസാരിക്കുന്നവർ നേരിടുന്നുണ്ട് അത് കേരളത്തിൽ നിന്ന് തന്നെ വെല്ലുവിളികൾ ഒരുപാട് നേരിടുന്നുണ്ട്